പഴയ ഗാനങ്ങളും പുതിയ ഗാനങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ പഴയ പാട്ട് കുറച്ചുംകൂടി ക്ലാസിക് ആയിരുന്നു അത് മിക്കവാറും എല്ലാ പാട്ടുകളും മെലഡി പാട്ടുകൾ ആണ് പക്ഷെ ഇന്നത്തെ കാലത്ത് ഇന്നത്തെ ജനറേഷൻ അനുസരിച്ചിട്ടുള്ള എനർജറ്റിക്കായിട്ടുള്ള പാട്ടുകളാണ് പക്ഷെ പഴയ പാട്ടുകൾക്ക് അതിൻ്റെതായ ഒരു ഭംഗിയുണ്ടായിരുന്നു എനിക്കേറ്റവും കൂടുതൽ ഇഷ്ടം പഴയ പാട്ടുകളോട് ആണ് നയന്റി സിക്സ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അതുപോലെതന്നെ തമിഴ് പാട്ട് വളരെ ഇഷ്ടമാണ് പഴയ